ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും കാണാൻ കഴിയാത്ത ഒരു രീതിയിലുള്ള മികച്ച രീതിയിലുള്ളന്നു വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലാണ് നല്ല രീതിയിലുള്ള അതായത് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയ സ്ഥലങ്ങളെന്നു പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലാണ് കാരണമെന്തന്നു വെച്ചു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഭൂപ്രകൃതി അങ്ങനെയാണ് കേരളം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ ഇപ്പം ഒരു ചരിഞ്ഞു കിടക്കുന്ന ഒരു പ്രദേശമാണ് അപ്പം ഈ കടലിനോട് അടുത്തു നിൽക്കുന്ന ഒരു പ്രദേശമായതുകൊണ്ട് നല്ല ഭംഗിയാണ് കാണാൻ ആ അപ്പോൾ കൂടുതലായിട്ടും തെങ്ങ് കൃഷി ചെയ്യുന്നത് കേരളത്തിലാണ് കൂടുതലായിട്ടും അപ്പോൾ കേരളം കാണാൻ തന്നെ ഒരു ഭംഗിയാണ് കാരണമെന്താന്നു വെച്ച് കഴിഞ്ഞാൽ പ്രകൃതി ഭംഗി ആസ്വദിക്കണമെങ്കിൽ നമ്മൾ കേരളത്തിൽ വരണം കേരളത്തിലെ ആൾക്കാരുടെ ഒരു മനസ്സെന്നു പറഞ്ഞുകഴിഞ്ഞാൽ അതൊരു ഒത്തൊരുമയായിട്ടുള്ള ഒരു മനസ്സാണ് പിന്നെ എങ്ങനെയാന്നു വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ ഫോറസ്റ്റുകൾ ഫോറസ്റ്റുകളിലുള്ള കാ അതായത് മൃഗങ്ങൾ മൃഗങ്ങളെ കാണാനൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ ഈ സഞ്ചാരികൾ വിനോദസഞ്ചാരികളൊക്കെ കൂടുതലായിട്ടും കേരളത്തിലേക്കാണ് വരാറ് കേരളത്തിലെ ഒരു ഇപ്പം വെള്ളച്ചാട്ടങ്ങൾ അതിരപ്പള്ളി വെള്ളച്ചാട്ടം കേരളത്തിലെ ഏറ്റവും വലിയൊരു വെള്ളച്ചാട്ടമാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടം ഇതൊക്കെ കാണാൻ ആൾക്കാർ ഇഷ്ടംപോലെ വരാറുണ്ട് അപ്പം കേരളത്തെയാണ് കുറച്ച് കുറച്ചുംകൂടെ കൂടുതലായിട്ട് ഭംഗിയുള്ളതായിട്ട് എനിക്ക് തോന്നുന്നത് വൃത്തി അത്യാവശ്യം വൃത്തിയുള്ള ഒരു സ്ഥലങ്ങളൊക്കെയാണ് കേരളമെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലത്തു വൃത്തിഹീനമായിട്ടാണ് കിടക്കുന്നത് ചപ്പ് ചവറുകളൊക്ക വലിച്ചിട്ടിട്ട് ഒരു വൃത്തികെട്ട ഒരു കാലാവസ്ഥയൊക്കെയാണ് അവിടെയുള്ളത്